പണ്ടൊക്കെ ആണെങ്കിൽ തനി മലയാളം മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇംഗ്ലീഷും കൂടെ കലർത്തിയാണ് ഇപ്പോൾ മിക്കവാറും എല്ലാവരും സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞെന്നാൽ കാറ് പിന്നെ ബസ് അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളിലും പകുതി മലയാളവും പകുതി ഇംഗ്ലീഷ് ആയിട്ടാണ് ഓരോരുത്തര് സംസാരിക്കുന്നത് അത് സംസാരിക്കുന്നത് അത് മലയാളം പറഞ്ഞാലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷും കൂടെ അവര് ചേർത്താണ് കൂടുതൽ ആൾക്കാരും ഇപ്പോൾ സംസാരിക്കുന്നത് മലയാളം തനി മലയാളമല്ല ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ സംസാരിക്കുന്നത് പകുതി വീതം കുറേശ്ശെ അവര് ഈ ഇംഗ്ലീഷും കൂടെ കൂട്ടിച്ചേർത്താണ് അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മലയാള ഭാഷയ്ക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്